മലയാള ഭാഷ എന്ന് പറയുന്നത് എല്ലാ മലയാളികൾക്കും തൻ്റെ പെറ്റമ്മ പോലെയാണ് അമ്പത്തൊന്നക്ഷരമല്ല അമ്പത്താറക്ഷരമല്ല അമ്മയെന്ന രണ്ടക്ഷരമാണ് എനിക്ക് എൻ്റെ മലയാളം എന്ന് ഒരുപാട് കവികൾ പറഞ്ഞിട്ടുണ്ട് ഭാവിയിൽ മലയാള ഭാഷയെ എങ്ങനെയെല്ലാം പ്രോത്സാഹിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുമെന്നത് ഇന്ന് വളരെയധികം ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ് കാരണം മലയാള ഭാഷ ഇന്ന് അന്ന്യം നിന്ന് പോകുകയാണ് എല്ലാ വിദ്യാർത്ഥികളും എല്ലാ ജനങ്ങളും ഇന്ന് ആംഗലേയ ഭാഷയായ ഇംഗ്ലീഷിലേക്ക് കടന്നു ചെന്നുകൊണ്ടിരിക്കുന്നു ഇംഗ്ലീഷ് ഭാഷയുടെ ആംഗലേയ ഭാഷയുടെ കടന്നു വരവോട് കൂടി ഇന്നത്തെ വിദ്യാർത്ഥികൾ കുഞ്ഞ് കുഞ്ഞു കുരുന്നുകൾ പോലും മലയാളം സംസാരിക്കാൻ മറന്നുപോയി എന്നതാണ് അതായത് നമ്മുടെ സ്വന്തം പെറ്റമ്മയെ മറന്നിരിക്കുന്നു എന്ന അവസ്ഥ ആ ഒരു രീതിയിലേക്ക് വരാതെ നമ്മുടെ ഭാഷയെ എങ്ങനെയെല്ലാം നമുക്ക് പ്രോത്സാഹിപ്പിക്കയും സംരക്ഷിക്കുകയും കഴിയുമോ അത്രത്തോളം നാം ചെയ്യണം എന്നത് ഇന്നും ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു